ഇന്ത്യയില് ഗതാഗത സംവിധാനം എന്നുവച്ചുകഴിഞ്ഞാല് ഏറ്റവും കൂടുതല് ആൾക്കാര് ഉപയോഗിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യന് റെയിൽവേ അതു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതല് ഉപയോഗിക്കുന്നതു റോഡുകളാണ് ഇന്നു പല സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ റോഡുകള് ഇഷ്ടം പോലെയുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര ഗവണ്മെന്റ് പദ്ധതിയായ പല റോഡുകളും ഇന്നു സംസ്ഥാനങ്ങളുമായിട്ടു കൂട്ടുചേർന്ന് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു നല്ല നല്ല നാല് വരിപ്പാതകള് എട്ടുവരിപ്പാതകള് ഇതൊക്കെയിന്നു വളരെയധികം സംസ്ഥാനങ്ങളുമായിട്ടു ബന്ധപ്പെട്ടു വരുന്നതാണ് അതു നല്ല കാര്യമാണ് അതുപോലെതന്നെ ജലഗതാഗതമാർഗ്ഗങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ പല രൂപത്തില് കപ്പലുകള് വിമാനങ്ങള് റെയിൽവേ ബസ്സ് ഇങ്ങനെയെല്ലാ രൂപത്തിലും ഇന്ന് ഇന്ത്യയില് നല്ല രൂപത്തിലുള്ള ഗതാഗത മാർഗ്ഗങ്ങളാണ് നിലവിലുള്ളത്